ആ ചേച്ചി കുറച്ച് പൂവ് പൂവ് വേടിക്കാൻ വേണ്ടി വന്നതാണെ ഞാൻ അപ്പോൾ കോളേജിൽ ഒരു ഫംഗ്ഷൻ വേണ്ടി ഇടാനാണ് തിരുവോണത്തിന് അപ്പോൾ കുറച്ച് കൂടുതൽ പൂവ് വേണം മ് കുറച്ച് കൂടുതൽ പൂവ് വേണം നമുക്ക് ഈ ഇവിടെ എന്തൊക്കെ വെറൈറ്റീ പൂക്കളാണ് ഉള്ളത് എല്ലാ പൂക്കളും വേണം ഇപ്പോൾ വെറൈറ്റീ ആയിട്ട് പിന്നെ ഏതൊക്കെയാണ് പൂക്കള് ഉള്ളത് പേരൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ ഈ ചെണ്ടുമല്ലി ഒക്കെ എന്ത് റേറ്റ് വരും മ് എല്ലാ പൂവും വേണം ഇപ്പോൾ ചെണ്ടുമല്ലി ഇതിപ്പോൾ ഈ യെല്ലോ മഞ്ഞ എന്തായാലും ഒക്കെ എന്ത് റേറ്റ് വരുന്നത് ചെണ്ടുമല്ലിക്ക്

അതേ അല്ലേ പരിപാടി മൂന്ന് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടെ

ഓ അതേ അല്ലേ ഒക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് രണ്ട് എണ്ണം എടുക്കാം പിന്നെ അതേപോലെ റോസ് എന്താ വില റോസ് എങ്ങനെ കിലോ ആണോ അതോ എണ്ണം ആണോ ആ ഇപ്പോൾ ഏതൊക്കെ കളർ ഉള്ളത് ഇവിടെ ഒക്കെ ഇത് ഒരു കിലോ വെച്ചിട്ട് കിട്ടുമല്ലൊ നമുക്ക് ആ മുല്ല പൂവ് വേണം മുല്ലപ്പൂവ് എന്താ റേറ്റ് അതും എങ്ങനെയാണ് അത് മുഴുവൻ ആണോ അതോ കിലോ ഒക്കെ അത് ഒരു നാല് കിലോ എടുത്തോളൂ പിന്നെ ഈ തെച്ചി ഒക്കെ ഉണ്ടോ ഈ അതെ അല്ലെ ഒക്കെ പിന്നെ ഈ അതെ അല്ലെ ഒക്കെ അപ്പോൾ ഇനി ഇപ്പോൾ ഏതാണ് പൂവ് ഉള്ളത് ഈ വാടാമല്ലി എടുത്തോളൂ വാടാമല്ലി ഒരു കളറേ ഒള്ളു ആ ശരി ആ വാടാമല്ലി എടുത്തോളൂ നാല് കിലോ നാല് കിലോ വേണം ഇതൊന്നും ഇത്രയും പോര ഇനി ഇനി വേറെ വെറൈറ്റീ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ അതേ അല്ലേ ഒക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റെ പൂവോക്കെ ഈ താമരയോ അങ്ങനെ എന്തെങ്കിലും മ് മ് ഓ അത് ഫ്രെഷ് ആയിട്ട് വാടിപോവില്ലല്ലോ ഒക്കെ ഒക്കെ അപ്പോൾ അത് ഇനി എപ്പോഴൊക്കെയാണ് വരിക ഓർഡർ തന്നാൽ എപ്പോൾ കൊണ്ട് വരും വൈകുന്നേരം ആകുമ്പോളെക്കും വരുമോ ഇവിടെ ഒക്കെ അപ്പോൾ എനിക്ക് ഈ ആമ്പലും മറ്റെതൊക്കെ വേണം നേരത്തെ പറഞ്ഞ പൂവ് അതൊക്കെ എത്തിച്ചുതരില്ലേ എത്തില്ലേ ഇല്ലെങ്കിൽ വന്ന് കളെക്റ്റ് ചെയ്യാം ഒക്കെ അപ്പോൾ ഇതിനിപ്പോൾ റേറ്റ് എങ്ങനെ ആണ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതിയോ കാഷ് ആയിട്ട് തരണോ ഒക്കെ ഇത് ഞാനിപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് തരാം ഇത് പാക്ക് ചെയ്യുമ്പോൾ സെപ്റേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തരണേ ഒക്കെ ശരി